സാങ്കേതികവിദ്യകൾ ഇൻ്റർനെറ്റിൻ്റെയും ആവിർഭാവത്തോടെ മലയാളഭാഷയിൽ വന്ന മാറ്റമെന്ന് പറഞ്ഞാൽ പ്രധാനമായും അച്ചടിഭാഷയിൽ കുട്ടികളിൽ ആളിനെ ആളുകളെ വായനാശീലം കുറഞ്ഞിരിക്കുകയാണ് എഴുത്തും വായനയും കുറഞ്ഞിരിക്കുകയാണെന്നു തന്നെ പറയാം അപ്പം അതുവഴി ഭാഷ ആളുടെ ഉപയോഗം ശൈലി ഉപയോഗിക്കേണ്ട വിധം ഇതെല്ലാം കുറഞ്ഞുവരികയാണ് വായനയാണ് വായനയുടെ അവസ്ഥയാണ് ഏറ്റവും പരിതാപകരം ആളുകൾ വായനയ്ക്ക് ഒട്ടും താല്പര്യം എടുക്കാറില്ല ഇതുപോലുള്ള സാങ്കേതികവിദ്യകളുപയോഗിച്ച് അവ കേൾക്കുകയും കാണുകയും ചെയ്യുന്നതല്ലാതെ വായനയെന്ന് പറയുന്നത് നമ്മുടെ മറ്റുള്ള ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ ദിനപത്രങ്ങൾ അതുപോലുള്ള പുസ് നല്ല നല്ല പുസ്തകങ്ങൾ ഇവയോടുള്ള വായിക്കുന്നതിനോടുള്ള താൽപര്യം എല്ലാവർക്കും ഇതുപോലുള്ള സാങ്കേതികവിദ്യയുടെ ഇൻ്റർനെറ്റിൻ്റെ മൊബൈലിൻ്റെ ഒക്കെ ആവിർഭാവത്തോടെ കുറഞ്ഞിരിക്കുകയാണ് വായന ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യൻ്റെ നല്ല വിജ്ഞാനം വർധിക്ക് വർധിക്കുകയുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാം എങ്കിലും ഇപ്പോഴുള്ള പ്രത്യേകിച്ചും പുതിയ തലമുറ വായനക്ക് യാതൊരു പ്രാധാന്യവും കൊടുക്കുന്നില്ല മൊബൈലിനെയും ആശ്രയിച്ച് മാത്രമാണ് അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോളത് അതിനു വിപരീതമായി ഇവയൊക്കെ ഉണ്ടെങ്കിൽ പോലും പഴയ രീതിയിൽ ആളുകൾ കൂടുതൽ വായിക്കുകയും എഴുതുകയും അത് മറ്റുള്ളവരിലേക്ക് പകർന്നുകൊടുക്കാനായിട്ടും പരിശ്രമിക്കണം വായനയുടെ കുറവ് എഴുത്തിലും വരുന്നുണ്ട് പുതുതായിട്ട് ഉള്ള പലർക്കും എഴുത്തിൽ വളരെ തെറ്റുകളൊക്കെ വരാറുണ്ട് വായനയുടെ അഭാവം കൊണ്ടാണ് വായിക്കുകയും അതോടൊപ്പം എഴുതുകയും ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മുടെ ഭാഷയും ഭാഷാ ശൈലിയും ഭാഷയിലെ അക്ഷരങ്ങളും വാക്കുകളും വാക്യങ്ങളും ഒക്കെ തിട്ടപ്പെടുത്താനായിട്ടും സാധിക്കുകയുള്ളൂ അതിനാൽ വായന പരമപ്രധാനമായൊരു കാര്യം തന്നെയാണ് അതിന് ഇൻ്റർനെറ്റിൻ്റെയും സാങ്കേതികവിദ്യയുടേയും വരവോടെ അവയ്ക്കൊക്കെ ഒത്തിരി കോട്ടം തട്ടിയിട്ടുണ്ട്